ഹലോ ഞാൻ ഇവിടെ പത്തനംതിട്ട നിന്ന് വിളിക്കുന്നതാണ് അപ്പം ഞാൻ ഒരു ഗവൺമെന്റ് ഓഫീസ് സ്റ്റാഫ് ആണ് അപ്പം എനിക്ക് ഇവിടെ കോഴിക്കോടിലേക്കാണ് കോഴിക്കോട് രാമനാട്ടുകര സ്കൂളിലേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അതായത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അപ്പം എൻ്റെ മോളെ എനിക്കൊന്ന് അതായത് നിങ്ങളുടെ സ്കൂളിലേക്ക് ഒന്ന് ചേർക്കാൻ വേണ്ടി ആയിരുന്നു അവൾ അഞ്ചിലേക്കാണ് ഇനി അഞ്ച് കഴിഞ്ഞ് ഇനി ആറിലേക്കാണ് അപ്പം അവളെയും കൂടി ചേർക്കാൻ അത് എനിക്ക് ഇപ്പഴാണ് ട്രാൻസ്ഫർ കിട്ടിയത് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഇനി ഇപ്പം ആ അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ആവാൻ ആയിരുന്നു

ആ അഞ്ചാം ക്ലാസ്സിൽ ആ ആ ആ ആ

ഞങ്ങൾക്ക് പ്രൈവറ്റ് നമുക്ക് നമുക്ക് റേറ്റ് ഒന്നും നമുക്ക് ഒരു പ്രശ്നം ഇല്ല നമുക്ക് നല്ലവണ്ണം നല്ല ക്ലാസ് ആയിരിക്കണം അത്യാവശ്യം നല്ലവണ്ണം അവൾ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അവളുടെ അതായത് അവൾ അതിനിപ്പം അവിടെ പഠിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്പോയിൽ ചെയ്യാൻ പറ്റില്ല അപ്പം അത്യാവശ്യം നല്ലവണ്ണം പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് തന്നെ അവളെ ചേർക്കണം എന്ന് വെച്ചിട്ട് ക്യാഷിന്റെ പ്രശ്നം ഒന്നും ഇല്ല പിന്നെ വണ്ടി അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ ഒക്കെയോ ആ അതുകൊണ്ട് തന്നെയാണ് ആ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെത്തന്നെ കോൺടാക്ട് ചെയ്തത്

ആ അപ്പോൾ നിങ്ങൾ ഒന്ന് പോർഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തായാലും പക്ഷേ അവിടുത്തെ സിലബസും ഇവിടുത്തെ സിലബസും വ്യത്യാസം ആണോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ആ അങ്ങനെ ആണെങ്കിൽ അവളുടെ പേര് അവളുടെ പേരൊന്ന് ഇതാക്ക് ദക്ഷയാണ് ഞങ്ങൾ എപ്പോഴാണ് മൺഡേ വന്നിട്ട് ചേരാം കേട്ടോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ താങ്ക്യൂ